കൃഷിയെക്കുറിച്ചും എല്ലാം പഠിക്കണമെങ്കിൽ കുട്ടികൾ എന്നും പ്രകൃതിയിലേയ്ക്ക് ഇറങ്ങിത്തന്നെ നിൽക്കണം ഒരാൾ ഒരു വ്യക്തി പ്രകൃതി എന്താണെന്നും അല്ലെങ്കിൽ കൃഷി എന്താണെന്നും മനസ്സിലാക്കണമെങ്കിൽ മണ്ണിലേയ്ക്ക് ഇറങ്ങിച്ചെല്ലുക തന്നെ വേണം നമ്മൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ നമ്മളെ നമുക്ക് എല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളും ചരിത്രവും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് പഠനത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് വിദ്യാലയങ്ങളിൽപ്പോയി എന്നാൽ നമ്മൾ അവടെയെല്ലാം മറന്നു പോകുന്നൊരു കാര്യം എന്നു പറയുന്നത് കൃഷി എന്ന രീതിയാണ് എല്ലാവരും ബാക്കി എല്ലാ കാര്യം പഠിക്കുമ്പോഴും ഒഴിവാക്കപ്പെടുന്ന ഒരു കാര്യമാണ് കൃഷി എന്നു പറയുന്നത് കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കാർക്കും അറിയില്ല ആരും കുട്ടികളെ പഠിപ്പിക്കുന്നോ ഒന്നുമില്ല അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കുട്ടികൾ നേരിട്ട് മണ്ണിലേക്കിറങ്ങിച്ചെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കണത് തന്നെ വേണം പ്രകൃതി എന്താണെന്നും കൃഷി എന്താണെന്നും വിളകളെക്കുറിച്ചെല്ലാം പഠിച്ച് തൊഴിൽ ഈ കൃഷി മൃഗസംരക്ഷണം ചെറുകിട ബിസിനസ്സ് അങ്ങനെ അറ്റകുറ്റപ്പണി മിൽക്കോഴി എന്നു പറയുന്ന എല്ലാ സാധനങ്ങളെക്കുറിച്ചും പഠിക്കണം അതെല്ലാം ബുക്കുകളിൽ ഈ അച്ചടിച്ചു വച്ചേക്കുന്നതിലോ അല്ലെങ്കിൽ ഒന്നിലും അല്ല ഉള്ളത് അതെല്ലാം നേരിട്ട് കണ്ടു മനസ്സിലാക്കി പഠിക്കാനുള്ള ഒന്നാണ്